പണ്ട് കുറച്ചു മുൻപ് ഞങ്ങൾ കുടുംബക്കാരും എ എല്ലാവരും കൂടി ഒരുമിച്ച് പാലക്കാട് പോയിരുന്നു നെല്ലിയാമ്പതി ഒക്കെ കാണാനാണ് ഇവിടെ നിന്നു പോയത് കുറേ കുറേ മലകളൊക്കെ കയറി കണ്ട് വളരെ ഉയരത്തിലൊക്കെ എത്തി ഞങ്ങൾ താഴത്തേക്കു നോക്കുമ്പോൾ കുറേ കുറേ സ്ഥലങ്ങളും കാണാം കാണാം പറ്റും അതേപോലെ വെറപ്പുറത്തൊരു നല്ല വെള്ളച്ചാട്ടം ഒ പാലരുവി പോലെ വെരുന്നതും കാണാൻപറ്റും അത് നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോൾ സൂര്യൻ അസ്തമിക്കണതൊക്കെ സ്ഥിരം കാണലുണ്ട് ഉദിക്കുന്നത് കാണാൻ വേറെ പോയിട്ടില്ല